ഹലോ ഡോക്ടർ അശ്വതിയല്ലേ ഐ സ്പെഷ്യലിസ്റ്റ് ആ ഞാൻ ആ എൻ്റെ പേര് ആമി എന്നാണ് ഞാനെൻ്റെ അച്ഛൻ്റെ ഒരു ഓപ്പറേഷൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അച്ഛൻ്റെ പേര് സുമേഷ് ആ ഞങ്ങൾ ഒരു വൺ വീക്ക് മുൻപ് വന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ആ അതെ റിഫ്രാക്റ്റീവ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആൾക്കൊരു കണ്ണിന് മൂടലായിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രോപ്ലെറ്റ്സ് ഒഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചിട്ടിപ്പോൾ വലിയ വ്യത്യാസം തോന്നിയില്ല ഓ അതാണല്ലേ

ആ ഒരാഴ്ചയായിട്ടിപ്പോൾ ഞങ്ങൾ പോയി വന്ന അന്ന് തൊട്ട് ഒഴിക്കുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസം ആ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമോ

ആ അല്ല അപ്പോൾ എന്നാണ് അഡ്മിറ്റ് ആവേണ്ടത്

ആ അപ്പോൾ നമുക്ക് അഡ്മിറ്റ് ആയി കിടക്കണം ഒരു രണ്ട് ദിവസം അങ്ങനെ കിടക്കേണ്ടി വരും അല്ലേ ഓ വൺ വീക്ക് വേണമല്ലേ

ഏജ് സെവെൻറ്റി ഫോർ

ആ പിന്നെ പിന്നെ ഒരു കാര്യം അച്ഛൻ ഡയബറ്റിക് ആണേ അതിൻ്റെ മരുന്ന് കൂടി കഴിക്കുന്നുണ്ട്

ഇല്ല മരുന്ന് കഴിക്കുമ്പോൾ നോർമൽ ആയി പോവുന്നുണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ കൂടും

ആ ആ ആ ഓക്കെ ഓക്കെ

ആ അത് ഓക്കെ ഞാൻ കുഴപ്പമില്ല ആ ഒരാൾ നിൽക്കാൻ പറ്റുമല്ലേ ആ അത് ഞാൻ അറേഞ്ച് ചെയ്യാം ആ അത് നമ്മൾ ബുക്ക് രജിസ്റ്റർ എങ്ങാനും ചെയ്യേണ്ട ചെയ്യണമെന്നുണ്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ